ഹലോ അജയലക്ഷ്മി അല്ലേ കഴിഞ്ഞ ദിവസം ഒരു കിളി കൊണ്ട് തന്നിട്ട് പോയതല്ലേ ഉള്ളൂ വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്തുപറ്റി തിരക്കായിപോയോ ആ ഹാ ഹാ ഓ ലൈനിംഗ് എടുത്തിട്ടില്ലല്ലേ മ് അപ്പോൾ ലൈനിംഗ് എടുക്കണം എന്തിൻ്റെ എന്ത് ലൈനിംഗാ എടുക്കേണ്ടത് ഏത് തുണിയാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഓക്കേ അപ്പോൾ അതിൽ മാറ്റി വയ്ക്കുന്ന ഒരു ലൈനിംഗ് ഞാൻ തന്നെയങ്ങ് എടുത്തേക്കട്ടെ ആ അപ്പോൾ പൈസ ഇങ്ങോട്ട് വരുമ്പത്തേനും ഞാൻ അതുംകൂടെ കൂട്ടി പറഞ്ഞേക്കാവേ ഇതിപ്പോൾ എന്നത്തേക്കാണ് വേണ്ടത് ആണോ അല്ലെ എന്തെങ്കിലും പരിപാടി ആണോ ആ ഓക്കേ ഓക്കേ അപ്പോൾ ഇതെങ്ങനെയാ തയ്ക്കേണ്ടത് എന്തെങ്കിലും മോഡലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ആ ഓക്കേ ആ ഓക്കേ കൈയ്ക്ക് എന്തോരം ലെങ്ത്ത് വേണം

കൈയ്ക്ക് എന്തോരം ലെങ്ത്ത് വേണം ആ മൊത്തത്തിൽ വേണം അല്ലേ ആ പഫ് അങ്ങനെ എന്തെങ്കിലും വേണോ കയ്യിടെ ഷോൾഡറിൻ്റെ അവിടെ ആ ഓക്കേ ഓക്കേ പിന്നെ എന്താ നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ ആ അപ്പോൾ അതിന് എക്സ്ട്രാ പേയ്മെന്റ് ആകും പക്ഷെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വർക്ക് നമുക്ക് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും കളർ കോമ്പിനേഷനൊ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ആണോ അപ്പോൾ പ്ലേയ്നും വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഓക്കേ ഓക്കേ എന്നാൽ ഞാൻ ആ ഡിസൈന് തയ്ച്ചിട്ട് നമുക്ക് മൂന്ന് ഫാഷനിൽ വരുന്ന ഡിസൈന് ഉണ്ട് തുന്നിയതും ഒരു മീഡിയം സൈസ് പിന്നെ അത്യാവശ്യം നല്ല അതുപോലെ മൂന്ന് സൈസ് ഓഫ് ഡിസൈൻ ഉണ്ട് അത് ഞാൻ അയച്ചേക്കാം ഏതാ വേണ്ടേത് വെച്ചാൽ പറഞ്ഞാൽ മതി എന്നിട്ട് കളർ കോമ്പിനേഷൻ നമുക്ക് ഒരുമിച്ച് സംസാരിച്ച് ഏതാണെന്ന് വെച്ചാൽ പല പല കളർ ഉണ്ടല്ലോ നമുക്കത് മാക്സിമം ആയിട്ടുള്ളത് നോക്കിയിട്ട് ഞാൻ ഇട്ടേക്കാം അതിലേതാണെന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി ആ ഓക്കേ ആ

ആണോ അപ്പോൾ അത് എത്രയെണ്ണം ഉണ്ട് അത് അത് എത്രയെണ്ണം ഉണ്ട്

ആ അതെ ആ തന്നേക്കാം തന്നേക്കാം ഇതിൻ്റെ ആയാൽ പെട്ടെന്ന് തന്നെ തയ്ച്ച് തന്നേക്കാവേ അത് എന്തിനുള്ളതായിരുന്നു അത് അതെയല്ലേ എന്ത് ചുരിദാർ ആണോ അതോ ഫ്രോക്ക് ആണോ എങ്ങനെത്തെ ഫ്രോക്കാ അല്ലേ ഫുൾ ഫ്രോക്ക്

ഓക്കേ സ്റ്റിച്ച് വെച്ചാണോ അതോ നോർമൽ തുണി വെച്ച് തന്നെ തുണിയും വെച്ച് രണ്ടും മിക്സ് ആയിട്ട് വരുന്നതാണോ ആ ഹാ ഹാ ഓക്കേ ഓക്കേ ആ ആ നിങ്ങൾ തുണിയൊക്കെ എടുത്തോ ആണോ ആ എടുക്ക് തുണിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാലും മതി ഇവിടെ പുതിയ കളക്ഷന് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടെ ഒന്ന് വന്ന് നോക്ക് എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവിടുന്ന് തന്നെ എടുക്കാമല്ലോ ആ അതാകുമ്പോ അതിന് മാച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം നമുക്ക് ചെയ്യാം